പ്രദേശത്ത് ഈ പ്രദേശത്ത് പറയാണെങ്കില് മെയിനായിട്ടും ചെങ്ങളത്തെ ചെങ്ങളമെന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടെ പള്ളിയുടെ ബാക്കിലായിട്ടുള്ള ഗ്രൗണ്ടില് അവര് പിന്നെ കളിക്കാനായിട്ടും മറ്റു കായിക പരമായിട്ടുള്ളതും എല്ലാവിധ പരിപാടികളും നടത്താനായിട്ട് അവര് സമ്മതിച്ച് നമുക്ക് ഗ്രൗണ്ട് കിട്ടുന്നുണ്ട് പിന്നീട് പറയുകയാണെങ്കില് കാഞ്ഞിരപ്പള്ളിയില് കുന്നേൽ സ്കൂളിൻ്റെ ഗ്രൗണ്ട് നമുക്കിതുപോലെ ആവശ്യങ്ങൾക്കായിട്ട് അവർ വിട്ടു തരാറുണ്ട് അവിടെത്തെ നാട്ടുകാരൊക്കെത്തന്നെയും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെത്തെ കുട്ടികളോടും കളിക്കാൻ വരുന്ന കുട്ടികളോടൊക്കെ വളരെ നല്ല രീതിക്കാണ് ഇടപെടുന്നത് കാരണം അവർക്ക് ഈ സ്പോർട്സിനോട് അതുപോലെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പള്ളിലച്ചൻ ആണെങ്കിലും ഫാദർ ഫാദറിനൊക്കെ അതുപോലെ ഭയങ്കര ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളുള്ളത് കൊണ്ടുതന്നെ അവർക്ക് എന്ത് ആവശ്യത്തിനാണേലും അവരാ ഗ്രൗണ്ട് വിട്ടു കൊടുക്കുന്നുണ്ട് കൂടുതലും സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വിട്ടു കൊടുക്കുന്നത് അതുപോലെ തന്നെ ടർഫ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ടർഫുകളുണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ട് ടർഫുകളുണ്ട് അതുപോലെതന്നെ കാഞ്ഞിരപ്പള്ളി ഉണ്ട് തമ്പലക്കാട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെത്തന്നെ ടർഫുകളും ഗ്രൗണ്ടുകളും കൂടുതലായിട്ടും ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളെ ഇവിടെയൊക്കെ കൂടുതലും ഗ്രൗണ്ടുകളും ഇതൊക്കെ എന്താവശ്യത്തിനാണെങ്കിലും കായിക പരമായിട്ടുള്ള മത്സരം നടത്താൻ അവര് വിട്ടു തരുന്നുണ്ട് അതുപോലെ പഞ്ചായത്ത് മേളകള് പോലെയുള്ള കാര്യങ്ങള് അവര് നമുക്ക് അവിടെ എന്താ പ്രോഗമായിട്ട് നടത്താനും അതിൽ നിന്ന് ട്രോഫികള് സർട്ടിഫിക്കറ്റുകള് ഇതൊക്കെ നമുക്ക് അവര് തരുന്നുണ്ട് ആനിക്കാട് ആനിക്കാട് പറഞ്ഞ സ്ഥലത്ത് അവിടെയും ഇതുപോലെ സ്കൂളിൻ്റെ ഗ്രൗണ്ടുകള് ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണ് അവിടെത്തെ നാട്ടില് വളരെ നല്ല രീതിക്കാണ് ഗ്രൗണ്ട് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് കാടൊക്കെ കേറുന്നതൊക്കെ വെട്ടിക്കളഞ്ഞ് ആ ഗ്രൗണ്ടിൻ്റെ പിച്ച് ശരിയാക്കി അതുപോലെതന്നെ അവിടെ കളികള് കൂടുതല് ക്രിക്കറ്റ് ഫുട്ബോള് ഷട്ടില് ഇതുപോലെയുള്ള കളികളൊക്കെ കൂടുതലായിട്ടും അവരവിടെ നടത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ കുട്ടികൾക്കൊക്കെ ഈ കായിക പരമായിട്ടുള്ള കാര്യങ്ങളില് കൂടുതല് എന്താ പറയുക അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടുത്തെ നാട്ടുകാര് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് കൂടുതലവർക്ക് ആവേശം കൂട്ടാനും ഇതിൽനിന്ന് സഹായിക്കുന്നുണ്ട്